വൻകിട കൃഷിക്കാർ കൃഷി തുടങ്ങിയതിലൂടെ ഏറ്റവും നഷ്ടമുണ്ടാകുന്നത് ചെറുകിട കർഷ കർഷകർക്കാണ് ചെറുകിട കർഷകർ എന്ന് പറയുന്നത് അവരുടെ നിത്യേന ജീവിതത്തിലേക്കുള്ള ആവശ്യത്തിനു വേണ്ടി പണം കണ്ടെത്താൻ വേണ്ടിയാണ് കൃഷികൾ ചെയ്യുന്നത് ചെറുകിട എന്ന് പറയുമ്പോൾ കുറേശേ കുറേശേ കൃഷികൾ ഓരോ വിഭവങ്ങൾ ചെർ കൊർ കുറച്ചായി കൃഷി ചെയ്തും അത് മാർക്കറ്റുകളിൽ വിറ്റഴിച്ചും പണം കണ്ടെത്തുക എന്നതാണ് അവരുടെ രീതി എന്നാൽ വൻകിട കൃഷിക്കാർ ഏക്കറ് കണക്കിന് സ്ഥലങ്ങൾ കൃഷി ചെയ്ത് അവർക്ക് വൻലാഭം ഉണ്ടാക്കും വൻലാഭം എന്ന് പറയുമ്പോൾ അവർ അവരുടെ വിളവുകൾ മാർക്കറ്റിൽ കൊണ്ട് വിതരണം ചെയ്യുമ്പോൾ മാർക്കറ്റുകളിലെ വിപണിക്കാർക്ക് ഏറ്റവും ലാഭം എന്ന് പറയുന്നത് ഏക്ക ഒരു ഒരു കിലോ സാധനം കിട്ടുന്നിടത്തു നിന്നും പത്ത് കിലോ സാധനം ഒരുമിച്ച് കിട്ടിയാൽ ആയിരിക്കും അവർക്ക് ലാഭം കിട്ടുക അപ്പോൾ ചെറുകിട കൃഷിക്കാരെ അത് വല്ലാതെ ബാധിക്കും വൻകിട കൃഷിക്കാരിൽ നിന്ന് അവർ വിളവുകൾ ശേഖരിക്കും അപ്പോൾ അത് ചെറുകിട കൃഷിക്കാർക്ക് വളരെ തിരിച്ചടിയാണ് ഉണ്ടാകാറുള്ളത് അവർ അവരുടെ കൃഷി വിളവുകൾ അവർക്ക് വിറ്റൊഴിക്കാൻ പറ്റാത്ത രീതിയിൽ ആവും